ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാളും ഞാനുമായിട്ട് ഒട്ടും ഒത്തുപോവില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ജോലിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഞാൻ വേറെ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല അവരുടെ സംസാര രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ജോലി തീർത്തു അവരോട് മിണ്ടാൻ പോയിട്ടില്ല ജോലി തീർക്കും ഞാൻ എൻ്റെ ജോലി മാത്രം ഞാൻ നോക്കി അങ്ങനെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്